ഹലോ ആ ആ ആ ആ സുഖമാണ് ആ പുതിയ പുതിയ രണ്ട് പടങ്ങൾ ഉണ്ട് ഒന്ന് തമിഴിലാണ് ഒന്ന് തെലുങ്കിലും തെലുങ്കിൽ ഇപ്പോൾ ഒരുമ കഴിഞ്ഞു പൃഥ്വിരാജിൻ്റെ കൂടെ ഇനി അടുത്തൊരു മലയാള പടം ഉണ്ട് അത് മോഹൻലാലിൻ്റെ കൂടെയാണ് ആ എവിടെയാണ് സ്ഥലം

ആ ഞാൻ അവിടൊരു ഉൽഘാടനത്തിനു വരുന്നുണ്ട് അപ്പോൾ കാണാം

പിന്നെ എന്താണ് ചെയ്യുന്നത് ആ വീട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആ അച്ഛനും അമ്മയൊക്കെ സുഖം സുഗമായിട്ട് ഇരിക്കുകയല്ലേ

എന്നാൽ ഇനി വരുമ്പോൾ കാണാം ശമ്പളം എത്രയുണ്ട്

മക്കളൊക്കെ എന്താണ് പഠിക്കയ ആ ഭർത്താവിനോ ആ എന്തെകിലും സഹായം വേണോ ആ എന്തായാലും നേരിൽ കാണുമ്പോൾ പറയാം